ഇൻഡ്യയിലെ ശാസ്ത്രജ്ഞന്മാര് ഇൻഡ്യയില് കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട് നമ്മൾ അതിൽ എല്ലാവരെയും പറയുകയാണെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഒരു പ്രസിഡൻറ്റായി ശാസ്ത്രജ്ഞനായി പരാജയപ്പെട്ട് പിന്നെയും അത് തന്നെ എന്താണ് അതു തന്നെ പിന്നെയും ചെയ്ത് വിജയിച്ച ഒരാളാണ് പരാജയത്തിലൂടെ വിജയത്തിലേക്കു വന്ന ഒരാളാണ് അദ്ദേഹം പണ്ട് ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നിട്ടും അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ എന്നുള്ളൊരു വലിയ പദവിയിലേക്ക് എത്തുകയും ഇൻഡ്യയിലെ പ്രസിഡണ്ട് ആകുകയും പിന്നെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരികെയും നന്നായിട്ട് ചിന്തിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കുറേ വാചകങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്ന ഒരു വലിയ മനസ്സിന് ഉടമയാണ് എ പി ജെ അബ്ദുൾ കലാം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും ഇൻഡ്യക്ക് എന്തുമാത്രം പ്രധാനം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഡ്യേനെ വളർച്ച ഇൻഡ്യയിലെ ശാസ്ത്രജ്ഞര് ഐ എസ് ആർ ഒയിനെ വളർച്ചയിലേക്ക് നയിച്ച വളർച്ചയിലേക്ക് നയിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇൻഡ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം തന്നെയാണ് വേറെ ആരും അദ്ദേഹത്തിന്റത്രയും ഉയരത്തിലേക്ക് വന്നിട്ടില്ലെന്നല്ല പക്ഷെ അദ്ദേഹം തന്നെയാണ് എപ്പൊഴും മികച്ചത് എല്ലാ കാലത്തും അദ്ദേഹമാണ് എപ്പോഴും മികച്ച് നില്ക്കുന്നത് അദ്ദേഹം തീർച്ചയായും ഐ എസ് ആര് ഒ ചെയർമാനായി അദ്ദേഹം പരാജയത്തിലൂടെ വിജയത്തിലേക്ക് വന്നതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ആ വിജയം എന്ന് പറയുന്നത് ഏറ്റവും മികച്ചത് തന്നെ ആയിരുന്നു അത് എല്ലാ കാലത്തും എപ്പോഴും തലമുറകളായി നിലനിൽക്കുന്നതും ആണ് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ശാസ്ത്രജ്ഞൻ ഞാൻ വായിച്ചിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ